ആ വിനായക ഹോസ്പിറ്റലല്ലേ ആ അപർണ്ണ ഡോക്ടറിൻ്റെ ആ എനിക്ക് രണ്ടുദിവസമായിട്ട് പനിയാണ് അപ്പോഴൊരു പാരസെറ്റമോളൊക്കെ കഴിച്ചിരുന്നു എന്നിട്ടും കുറവില്ല

പാരസെറ്റമോൾ കഴിച്ചിരുന്നു എന്നിട്ടും കുറവില്ല ആ തൊണ്ട ആ ഓക്കെ തൊണ്ട വേദനയൊക്കെയുണ്ട് ആ ഉണ്ട് ഇല്ല ചോദിക്കുമ്പോൾ പോവാം തലവേദന

ആ ഇവിടെ പാരസെറ്റമോൾ അഞ്ഞൂറിന്റേതാണോ അറുനൂറ്റമ്പതിന്റേതാണോ നല്ലത് അഞ്ഞൂറിൻ്റെ

ആ അച്ഛനുണ്ടായിരുന്നു ഇല്ല അച്ഛന് അല്ലാതെ വന്നു

ആ ഓക്കെ ഈ ത്രോട്ട് പെയിൻ മാറാൻ

ആ ആ ഹോസ്പിറ്റലിൻ്റെ

ആ ഇപ്പോൾ വൈറൽ ഫീവറുള്ളതുകൊണ്ട് അതാണോയെന്ന് പറയാൻ പറ്റില്ല

ആ ശരി ആ വിളിക്കാം